ആ ഹലോ സാറേ നമസ്കാരം എൻ്റെ പേര് ഷാഹിൻ എന്നാണ് ഞങ്ങൾ പറവന്നൂരാണ് താമസിക്കുന്നത് ആ എനിക്ക് നിങ്ങളെ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജോയിൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്

കുറച്ചൊന്ന് ഹൾക്കാക്കി എടുക്കണം

ഫീസാണോ

ഓക്കേ ഓക്കേ ആ

ആ ഫോൺ നമ്പര് പറയട്ടേ എമ്പത്തഞ്ച് തൊണ്ണൂറ് മുപ്പത്തേഴ് നാല്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് ആ വാട്ട്സപ്പ് നമ്പറ് ഇതിൽ തന്നെ ഓഹ് ഓഹ് സാറേ എൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ സാറേ ഈ ബോഡി ഒന്ന് എത്ര മാസം കൊണ്ട് സെറ്റായി എടുക്കും

ഓക്കേ ഓക്കേ ആ ഞാൻ ഹോം വർക്കൗട്ട് കുറേ ചെയ്തു നോക്കി ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല അതുകൊണ്ടാണ് പിന്നെ ജിമ്മിൽ ചേരാമെന്ന് വിചാരിച്ചത് ആ ആ

ഓക്കേ ഓക്കേ ആ ഇത് എല്ലാ ദിവസവും ചെയ്യണോ ആ ഓഹ്

നമ്മൾക്ക് സ്വന്തമായിട്ട് ട്രെയിനർമാർ കാണുമോ ആ ആ

അപ്പോൾ ഞാൻ നാളെ വരട്ടേ

ഞാൻ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനും വരാമെന്ന് വിചാരിച്ചത് ഓഹ് ഓക്കേ

ഓക്കേ സാർ ശരി ഓഹ് താങ്ക് യു